ഹലോ അ ആരാണ് അതേ അല്ലോ കഴിക്കാൻ ഇപ്പോൾ രാവിലെ ആ ദോശയുണ്ട് മസാലദോശ പുട്ടും മട്ടണും പിന്നെ പൊറോട്ട പുട്ടും കടലയും ഉണ്ട് അ സ്ട്രോങ് ചായ തരാമല്ലോ മധുരം ആവശ്യമുണ്ടോ

മധുരം വേണമെന്നോ

കഴിക്കാന് ഞാന് പറഞ്ഞല്ലോ പുട്ടും മട്ടണും പൊറോട്ട കട്ടന് പുട്ടും മുട്ടയും ഉണ്ട് ആ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വേണ്ടത് പറഞ്ഞാൽ മതി അ അതിനാണോ ഈ എല്ലാ ഭക്ഷണത്തിൻ്റേയും പേര് ചോദിക്കുന്നത് ആ നിങ്ങൾ കഴിക്കാന് പോരുക പപ്പടമുണ്ട് പൊടിയും വെള്ളവും കേട്ടോ തേയിലപ്പൊടി വെള്ളവുമായിട്ട് വേണേ കൊടുത്ത് വിടും കൊടുത്ത് വിടും തേയിലപ്പൊടിയും വെള്ളവും വേണമെങ്കിൽ കൈയിൽ കൊടുത്തു വിടും കെറ്റിലില്ല അതൊക്കെ വീട്ടിൽ വച്ച് കൈകാര്യം ചെയ്യാമെന്നുള്ളത് അ എന്നാലും കുഴപ്പമില്ല അതിന് വരുന്നതിന് നിങ്ങൾ നേരെ നിങ്ങൾ പോരാനെ ഇപ്പോൾ നേരത്തെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പം വന്നാലും ഏതു വേണമെങ്കിലും തരുന്നതായാരിക്കും കാശ് കയ്യിൽ കാണണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇല്ല ഇല്ല അതില്ല അതില്ല കാശ് കൈയിൽ ഉണ്ടാവണം ഗൂഗിള് പേ ഉണ്ട് അ ആയിക്കോട്ട് ആയിക്കോട്ട് ആയിക്കോട്ടേ